ആ അത് ഒന്നിച്ച് കൊണ്ടാക്റ്റായിട്ട് നമ്മൾ ആണെങ്കിൽ ഒരു സ്ക്വയർ ഫീറ്റിന് പതിനെട്ട് രൂപയോളം ആവും

അതെ അപ്പം രണ്ട് അതെ ആ ആ ആ ആ ആ മേളിൽ അപ്പം അടിയിലേക്ക് രണ്ട് പില്ലർ കൊടുക്കേണ്ടി വരും ആ സൈഡിൽ ചുമര് ചേർത്ത് രണ്ട് പില്ലർ കൊടുക്കുമ്പം കുറേക്കൂടെ സ്ട്രോങ് ആവും ആ ഭിത്തിയോട് ചേർത്ത് നല്ല പിന്നെ രണ്ട് മാസത്തിനുള്ളിൽ നമുക്ക് സ്പീഡപ്പായിട്ട് ചെയ്യാൻ പറ്റും

അതെ അപ്പം സ്പീഡപ്പ് ചെയ്ത് പറയുന്നതനുസരിച്ച് പിന്നെ മെറ്റീരിയൽസ് ഇറക്കിത്തന്നാൽ സ്പീഡായിട്ട് നമുക്ക് പണി ചെയ്യാൻ പറ്റും രണ്ട് മാസം കൊണ്ട് ചെയ്യാൻ പറ്റും മ് ആദ്യം ഒരു ലോട് ആദ്യം കല്ല് ഇറക്കുക നമ്മുടെ ഹോളോ ബ്രിക്സ് ആണോ ചുടു കല്ലാണോ ഹോളോ ബ്രിക്സ് കുറഞ്ഞ് മതിയല്ലോ സ ഉള്ളിലുള്ളിൽ കനം കുറഞ്ഞ് അപ്പം ആറിഞ്ചിൻ്റെ അല്ല നാല് ഇഞ്ചിൻ്റെ മതി ചുറ്റും എട്ടിഞ്ചിൻ്റെ വേണം ആ ഒരു അഞ്ഞൂറും നാന്നൂറും ഹോളോ ബ്റിക്സ് ഇറക്കുക പിന്നെ ഒരു തൽക്കാലം പത്ത് പേകറ്റ് സിമൻറ്റ് എടുക്കുക ഒരു ലോഡ് പാറപ്പൊടി ഇറക്കുക ആ ബാക്കി പിന്നെ അതിൻ്റെ ആവശ്യത്തിനുസരിച്ച് നമുക്ക് ഇറക്കിക്കോളാം ആ അത് മതി ഇരുന്നൂറ് മതിയാവും

ആ തല്ക്കാലം പത്ത് പേക്കെറ്റ് എട് പിന്നെ അതൊക്കെ തീരുന്നത് അനുസരിച്ച് എടുക്കാം അല്ലെങ്കിൽ ചിലപ്പം കട്ട പിടിച്ച് പോവാൻ സാധ്യത ഉള്ളത്കൊണ്ട്

ആ അതൊന്ന് നമുക്ക് നോക്കിയിട്ട് കൃത്യമായിട്ട് പറയാം ഉം മ് ശരി ശരി താങ്ക്സ്